ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ് വിനോദോപാധികൾ സാംസ്കാരിക നിലവാരം ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സാംസ്കാരികമായി രാജ്യത്തെ വളർത്തുന്നത് വിനോദ ഉപാധികളാണ് കലയും സാഹിത്യവും മനുഷ്യനെ സംസ്കരിച്ചെടുക്കുകയും അവനെ സമൂഹത്തിനും മറ്റുള്ളവർക്കും പ്രയോജനപ്രദവുമുള്ളവനായി തീർക്കുകയും ചെയ്യുന്നു കലയാണ് മനുഷ്യനെ മനുഷ്യനെ സംസ്കരിച്ചെടുക്കുന്ന എടുക്കുന്ന പ്രധാനപ്പെട്ട ഫാഗം കലാ സാഹിത്യ പ്രവർത്തനങ്ങളെ ആ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ ഉപകരിക്കുന്നു അത്കൊണ്ട് തന്നെ വിനോദോപാധികൾക്ക് അല്ലെങ്കിൽ കലാ സാംസ്കാരിക കായിക പരിപാടികൾക്ക് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കാനുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴ് ഇപ്പോൾ നില നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്ന വിനോദ ഉപാധികൾ സിനിമയാണ് സിനിമയിലൂടെ അന്ന് ഏറ്റവും വേഗത്തിൽ ആശയങ്ങൾ മനുഷ്യനിലെ പങ്ക് വയ്ക്കുവാനും സ്വീകരിക്കപ്പെടുവാനും കഴിയുന്നുണ്ട് സിനിമ പോലെ മനുഷ്യനെ സ്വാധീനിക്കിന്ന മറ്റ് വിനോദ ഉപാധികൾ കുറവാണെങ്കിൽ തന്നെയും പക്ഷെ വേറെ പലതും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത് അതുകൊണ്ട് പ്രത്യേകിച്ച് ആദ്യകാല സിനിമ വരുന്നതിന് മുമ്പ് ഡ്രാമയിലൂടെ ആയിരുന്നു നാടകത്തിലൂടെ ആയിരുന്നു ആൾക്കാരൊക്കെ കൂടുതൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയിരുന്നത് ഡ്രാമ ജീവിതത്തിൻ്റെ തനിപ്പകർപ്പ് ജീവിച്ചു തന്നെ കാണിച്ച് കൊടുക്കുമ്പഴ് പലപ്പോഴും അതിനകത്തെ നമുടെ ജീവിതത്തിൻ്റെ ഭാഗം നമുക്ക് കാണാൻ പറ്റുകയും അത് നമ്മുടെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിക്കുകയും ചെയ്യിന്നൊണ്ട് അതുപോലെ തന്നെ പാട്ട് മനുഷ്യനെ ഇത്ര അധികം സ്വാധീനിക്കുന്ന വേറെ ഒരു ഘടകം ഒരൂ വിനോദോപാധികളുണ്ടോ എന്ന് സംശയമാണ് ഗാനം സംഗീതം എന്നുള്ളത് മനുഷ്യനെ മനുഷ്യൻ്റെ ആത്മാമാവിനെ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു രീതിയാണ് നമുക്ക് അറിയാം പാട്ടിനേക്കാളും അല്ല ഗാനത്തോളം നമ്മുടെ നമ്മളെ പിന്നെ നമ്മുടെ ആ നമുക്ക് ആനന്ദം തരുന്ന ആത്മാവിൽ അല്ലെ ഒരു മനസ്സിൽ ഉള്ളിൽ നമുക്ക് ആനന്ദം തരുന്ന വേറെ ഒരു ഒരു വിനോദ ഉപാധികളില്ല എന്ന് വേണമെങ്കിൽ പറയാം സാധിക്കും പാട്ടിൽ ഗാനത്തിലൂടെ നമ്മുടെ ആത്മാമാവിനെ ദൈവത്തിൻ്റെ ഇതിലേക്ക് നമക്കുയർത്താൻ പറ്റുന്നുണ്ട് അത് അത് ആ അതാണ് അതിനത്തെ ഏറ്റവും പ്രത്യേകത അഭൗമികമായ ഒരു സന്തോഷത്തിലേക്ക് അല്ലെങ്കിൽ അലൗകികമായ ഒരൂ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മനസ്സിനെ ഉയർത്താൻ സംഗീതത്തിന് കഴിയുന്നുണ്ട് അപ്പം സംഗീതവും ഡ്രാമയും അതുപോലെ തന്നെ സിനിമയുമൊക്കെ ആധുനിക ലോകത്തിലും പഴയ ലോകത്തിലുമെല്ലാം മനുഷ്യനെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദോപാധ്യകളായിരുന്നു അതുപോലെ തന്നെ ഡാൻസ് ഡാൻസിലൂടെ അല്ലെങ്കിൽ ബാലയിലെ ആഗ്രഹങ്ങളിലൂടെയൊക്കെ കഥകളും പുരാണങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ അവതരിക്കപ്പെടുന്നത് പണ്ട് മുതലേ നിലവിലുള്ളതാണ് അതിലൂടെ ഈ ഡാൻസിലൂടെ അല്ലെങ്കിൽ ബാലയിലൂടെയാണ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പിന്നെ കാര്യങ്ങളിലൂടെ നമ്മളെ ധാർമികമായ മൂല്യങ്ങളെ അല്ലെങ്കിൽ ആധ്യാത്മിക മൂല്യങ്ങളെയോ ഒക്കെ ജനങ്ങളിൽ എത്തിക്കാൻ പണ്ട് മുതലേ സാധിച്ചിരുന്നു മനുഷ്യന് ഏറ്റവും സ്വാധീനിക്കുന്നതിൽ ഒന്നാണ് ഡാൻസ് അപ്പോൾ ഈ ഇവയെല്ലാം മനുഷ്യൻ്റെ വിനോദ ഉപാധികളാണ് ആണ് അതുപോലെ തന്നെ കായികമായ പല പരിപാടികളും മനുഷ്യനെ വിനോദത്തിലേക്ക് നയിക്കുന്നതാണ് ഇവയൊക്കെ നമുക്ക് നമ്മുടെ നമ്മൾ സാംസ്കാരികമായി വളർത്തുകയും ചെയ്യുന്നതാണ് വർഷങ്ങൾ കൊണ്ടാണ് നമ്മുടെ നമുക്ക് അറിയാം നമുക്ക് നോക്കിയാൽ വർഷങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഈ രംഗത്ത് ഇങ്ങനെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഇതിപ്പോൾ പണ്ടൊക്കെ സിനിമയൊക്കെ കാണണമെങ്കിൽ തിയേറ്ററിൽ പോവുകയും സിനിമ ഒക്കെ വേണമായിരുന്നു ഇന്ന് ഇപ്പോൾ അതേ അതൊക്കെ മാറിയിട്ട് ഒ റ്റി റ്റി പ്ലാറ്റ്ഫോമിലൂടെ ആണെങ്കിലും അല്ലാതാണെങ്കിലും വീടിന് മുമ്പിൽ നെറ്റിലൂടെയൊക്കെ ആണെങ്കിലും നമുക്ക് സിനിമകളൊക്കെ ഏറ്റവും വീട്ടിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ ഭയങ്കരമായി ഈ വിനോദ ഉപാധികളുടെ വലിയ വ്യവസായത്തിൻ്റെ ആ വലിയ വളർച്ചയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെ ആധുനിക വിനോദ രൂപങ്ങളൊക്കെ നമ്മുടെ ആൾക്കാരെ എല്ലാം ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് മനുഷ്യനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ സംസ്കരിച്ചെടുക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു വലിയ ഘടകമാണ് കല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിനോദ ഉപാധികൾക്ക് മനുഷ്യ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള വലിയ പങ്കുണ്ട് എന്ന് ഉള്ളത് സത്യമാണ്